ഹലോ ഹലോ

ഹലോ ടീച്ചറേ കേൾക്കുന്നുണ്ടോ ആ എന്തായിരുന്നു ടീച്ചറേ ആ അതെ

ഓൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നുണ്ട് ടീച്ചറേ ഞാൻ നോക്കുമ്പോൾ ഒക്കെ പഠിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടഫ് ആയിരുന്നൂ എന്ന് പറഞ്ഞായിരുന്നേ എന്നാലും ഇത്രയും മാർക്ക് കുറയുമെന്ന് പ്രതീക്ഷിച്ചില്ല ക്ലാസ്സിൽ എങ്ങനെയാണ് ആ ഉണ്ടായിരുന്നു ആ ആ ഞങ്ങൾ നോക്കുന്നുണ്ട് ഓൾ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ടി വി കാണാനൊന്നും നിൽക്കില്ല പഠിച്ചോളും ഇരുന്നിട്ട് ഇല്ല ഫോൺ അങ്ങനെ കൊടുക്കാറില്ല അവളുടെ അച്ഛനാണെങ്കിൽ അച്ഛൻ വരുമ്പോൾ ഒന്ന് നോക്കിയാലും പിന്നെ ഫോൺ വാങ്ങിച്ചു വയ്ക്കും പഠിക്കാൻ പറയും പാടായിരുന്നു എക്സാം എന്ന് പറഞ്ഞു മാത്സ് മാത്സ് കുറച്ച് ടഫ് ആയിരുന്നു എന്നും പറഞ്ഞു മാത്സ് അവൾക്ക് മനസ്സിലാകുന്നില്ല

ഞാൻ ഞാൻ എന്തായാലൂം നോക്കാം ആ ഞാൻ നോക്കാം ടീച്ചറേ

ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ടീച്ചറോട് ചോദിക്ക് പറഞ്ഞുതരും എന്ന്

ആ ഓ ടീച്ചർ ഒന്നുംകൂടെ കാര്യമായിട്ടൊന്നു നോക്കിയാൽ മതി അന്നന്ന് പോഷൻ അവൾ ഇവിടുന്ന് പഠിച്ചിട്ടൊക്കെയാണ് പോവുന്നത് ഇനി പഠിക്കുന്നുണ്ടൊ ഒന്നും അറിയില്ല ചിലപ്പം ബുക്ക് തുറന്നുവെച്ച് ഇരിക്കുന്നതാണോ നോക്കുമ്പോൾ ബുക്ക് എന്നും ബുക്ക് ഒക്കെ തുറന്ന് ഇരിക്കുന്നുണ്ട് അപ്പം കൊസ്റ്റൈൻ ചോദിക്കുമ്പം എന്നും അവളോട് ചോദിക്കുമ്പം അവൾ രണ്ടുദിവസം ചോദിച്ചുകഴിയുമ്പം മൂന്നാമത്തെ ദിവസം ഓട്ടോമാറ്റിക്ക് ആയിട്ട് വായിച്ച് പഠിച്ചോളുമല്ലോ അങ്ങനെ ചെയ്തുനോക്കുക ഞാൻ എന്തായാലും ഇവിടെ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കാം ഓളെ

ആ അങ്ങനെ ചെയ്യാം എന്നാൽ എന്നാൽ ശരി ടീച്ചർ